ആ മച്ചാനെ എന്നാ ഉണ്ട് എന്നാ സുഖമായിട്ടിരിക്കുന്നു ആ ഇപ്പം വീട്ടിലെ ല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെയോ ആ ആ ആ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ വേൾഡ് കപ്പ് കൊച്ചി നടക്കുന്നുണ്ട് വരുന്നൊണ്ടോടെ കളി കാണാൻ ആ ഞാൻ നോക്കുന്നത് ഈ വർഷം നമ്മൾ മുപ്പത്തിരണ്ട് റ്റീമാണ് അതിൽ ഓരോരോ വെന്യൂവില് നമ്മുടെ കൊച്ചി ആണെങ്കിൽ മൂന്നെണ്ണമാണ് വരുന്നത് നാല് റ്റീമാണ് ഒന്ന് അർജൻറ്റീന പിന്നെ ഒന്ന് ലിറ്റുവേനിയ പിന്നെ വേറൊന്ന് സ്പെയിൻ പിന്നൊന്ന് നമ്മുടെ ജപ്പാൻ ഈ നാല് കൺട്രീസ് ആണ് അവിടെ വരുന്നത് അതുപോലെത്തന്നെ

ആ അല്ല നമുക്ക് അറിയത്തില്ല അവർ സ്കോട് എടുത്തിട്ടില്ലല്ലോ പ്ലയേഴ്സ് അവർ തന്നെയാ ഇല്ല കാരണം മെസ്സി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഡിബാലേ ഒക്കെ വല്ലതും ആയിരിക്കും കളി തീരുന്നത് അവര് ആ അർജൻറ്റീന തോൽവിയായിരിക്കും അതുപോലെത്തന്നെ ജപ്പാൻ്റെ കാര്യവും ആ അത്കൊണ്ട് ജപ്പാൻ്റെ കാര്യവും അറിയത്തില്ല പിന്നെ അപ്പുറത്ത് തമിഴ് എന്നായിരുന്നു ചെന്നൈയിൽ നമ്മുടെ എന്നായിരുന്നു റൊണാൾഡോ ഒക്കെ ഇറങ്ങുന്നുണ്ട് പോർച്ചുഗൽന് വേണ്ടി ഈ പ്രായമായിട്ടും മനുഷ്യൻ്റെ കളി അപാര കളി തന്നെ ആ ആ നമുക്കത് അറിയത്ത് ഇല്ല നമുക്കറിയത്തില്ലല്ലോ പിന്നെ എങ്ങനെ എങ്ങനെയാണെന്ന് നമുക്കും അറിയത്തില്ല ജയിക്കുമായിരിക്കുമെന്ന് പ്രതീഷിക്കുന്നു നമ്മളെ പിന്നെ സ്പെയ്ൻന്നാണെൻ്റെയൊരു പ്രതീക്ഷ കാരണം ഈ മിലമാനൊക്കെ ഉള്ളതുകൊണ്ട് അവർ ജയിച്ച് പോകുമായിരിക്കും പിന്നെ നൂറ് ശതമാനം വിജയം എന്നല്ലേ വിജയം അതെ പിന്നെ നോക്ക് ലീവ് കിട്ടുമോ എന്ന് നോക്ക് കൊച്ചി വന്ന് ആ പക്ഷെ ആ ആ ആ കഴിഞ്ഞതവണ ഖത്തറിൽ പോയി കണ്ടതാണല്ലോ അല്ലേ അതെ അതെ അത് കൊണ്ട് നമുക്ക് ഈ തവണ എന്തായാലും ഇവിടെ വന്ന് കാണണം അതുപോലെത്തന്നെ നമുക്ക് എങ്ങനെയായിരുന്നു ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് നോക്കാം നേരത്തെ ടിക്കറ്റ് കിട്ടുമോ എന്ന് ആ ടിക്കറ്റിന് അല്ലേ പക്ഷെ ടിക്കറ്റിന് നല്ല റേയ്റ്റ് ആയിരിക്കും കാരണം വല്ലതും പതിനായിരം ആയിരിക്കത്തിനും ഒരു സീറ്റിന് തന്നെ വരുന്നത് നമുക്ക് നോക്കാം വല്ലതും വില കുറഞ്ഞ് കിട്ടുമോ ഓഫറ് വല്ലതും ആ നമുക്കത് നോക്കിയിട്ട് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചില സലത്തൊക്കെ എന്നാ ബ്ലാക്കിന് ടിക്കറ്റ് കിട്ടുന്നുണ്ടാവാം അതിനൊക്കെ ഭയങ്കര റേയ്റ്റ് ആണെങ്കിലും നമുക്ക് ആ ഞാൻ വേടിക്കാൻ നോക്കാം നമുക്ക് ബ്ലാക്കിന് വേടിക്കാമെന്നെ എന്നിട്ട് ആ അതുകൊണ്ട് നമുക്ക് അതായിരിക്കും നല്ലത് ഞാനൊന്ന് പ്രതീഷിക്കുന്നു പിന്നെ പിന്നെ അങ്ങനെ പറയുമ്പത്തേനും ഉയ്യോ എന്താ പറയുന്നത് നമ്മുടെ അർജൻറ്റീനയുടെ കാര്യമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടം തോന്നും കാരണം മെസ്സിയൊക്കെ റിട്ടയറ് ചെയ്ത് പോയതുകൊണ്ടെ ഇപ്പോൾ ആ ജയിക്കാൻ സാധ്യത കുറവായതുകൊണ്ട് നമുക്കൊരു ഒരു ഒരു മുപ്പത്തഞ്ച് സെക്കൻറ്റും കൂടെ മതിയല്ലോ ജയിക്കാൻ അത് കൊണ്ട് നമുക്കെന്തായാലും ജയിക്കുമെന്ന് തോന്നുന്നില്ല റൊണാൾഡൊ വല്ലതും ജയിച്ചാലേ ഉള്ളൂ അങ്ങനെ ശരി ശരി എന്നാൽ ഓക്കെ വിളിക്കാം ഓക്കെ